ഞാൻ ഒരു പവർ ബേങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് പവർ ബേങ്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വന്നു നല്ല പവർ ബേങ്കാണെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് നല്ല ഓഫർ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് മേടിച്ചത് ഒരു ഇരുപതിനായിരം എം എ എച്ചിന്റെ പവർ ബേങ്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് നോക്കി ഫോൺ അത് ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ തന്നയാണ് ചാർജ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ കുത്തിവെയ്ക്കുകയുണ്ടായി കുത്തിവെച്ചിട്ട് ഫുൾ ചാർജ് ആയി രണ്ടു ദിവസം കഴിഞ്ഞതും അത് ആകെ ബാറ്ററി ഒക്കെ ഡ്രെയിൻ ആയിപ്പോകാൻ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞു കുത്തിവെച്ചിട്ട് ചാർജ് ചെയ്തപ്പോൾ നമ്മുടെ ഫോൺ നന്നായി ഹീറ്റ് ആവുക അതേപോലെ പവർ ബേങ്ക് നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ടായിരുന്നു അതേപോലെ ചാർജ് കയറാൻ പവർ ബേങ്കിന് ഭയങ്കര താമസം നമ്മളെ ഫോണിൽ കുത്തിവെക്കുമ്പോൾ ഫോണിലേക്ക് കയറാനും ഭയങ്കര താമസം ഫോൺ ഹീറ്റ് ആവുക ഇങ്ങനെയുള്ള വളരെ മോശം പവർ ബേങ്ക് ആയിരുന്നു ഞാൻ അത് അഴിച്ചുനോക്കിയപ്പോൾ രണ്ടു ബേറ്ററീൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു കട്ട ബാക്കിയൊക്കെ മണ്ണായിരുന്നു വേസ്റ്റ് ഇതായിരുന്നു വളരെ മോശം പവർ ബേങ്ക് ആയിരുന്നു